ആ അങ്ങനെ വേഗത്തില് വീഡിയോ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് ഫോണിലൂടെയാണ് കളിച്ചിട്ടൊക്കെ ഉള്ളത് ഈ ഫോണില് തന്നെ ഒരുപാട് ഗെയിമുകളുണ്ട് അതില് എനിക്കിഷ്ടപ്പെട്ട ഗെയിമെന്ന് പറഞ്ഞാൽ കാൻഡി ക്രഷ് സഗാന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് അത് നമ്മള് ഒരേ പോലെ ഇങ്ങനെ ഓരോ ബബ്ബിള് പോലത്തെ ഓരോ സാ സംഭവങ്ങളുണ്ടാവും ഓരോ വട്ടം പോലത്തെ ഒര് സാധനങ്ങള് അത് നമ്മള് ഒരേ കളര് ആക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഗെയിമുകളുണ്ട് പിന്നെ കാർ റൈഡിങുണ്ട് അങ്ങനത്തെയൊക്കെ ഗെയിമുകള് ഞ്ഞങ്ങൾക്ക് എനിക്ക് ഇഷ്ടാണ് കളിക്കാനൊക്കെ പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ് ഉണ്ട് ഫ്രൂട്ട്സ് കട്ടിങ്ന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഫ്രൂട്ട്സുകളും ഉണ്ടാവും അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തു കയ്യിങ്ങോണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊട്ടി രണ്ട് കഷ്ണങ്ങളായിട്ട് മാറും അതിലൂടെ ഒരു ബോംബൊക്കെ വരാനുണ്ട് ആ ബോംബ് നമ്മള് ടച്ച് ചെയ്താല് നമ്മളാ ഗെയിമ്ന്ന് ഔട്ടാവും അങ്ങനെയൊക്കെയുള്ള ഗെയിമുകളൊക്കെ ഉണ്ട് ഫോണില് ഒരുപാടുതരം ഗെയിമുകളുണ്ട് അതില് എനക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ആപ്പിൾ കട്ടിങ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ഗെയിമൊക്കെ എനിക്ക് നല്ലോ നല്ലോണം ഇഷ്ടമാണ് അത് കളിക്കാനൊക്കെ എല്ലാവർക്കും രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാൻ നല്ല രസാണ് ആ ഗെയിമൊക്കെ കളിക്കുന്നത്